സ്കൂൾ കോളേജ് കലാലയ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും വലിയ ഓർമ്മകളിൽ ഒന്നാരുന്നു പടംവരയിലെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ പ്രത്യേകിച്ച് ഒരു വസ്തുവോ അല്ലെങ്കിലൊരു നിർജീവമായ ഒരു വസ്തുക്കളെ കണ്ട് അതിനെ ആ സമയം തത്സമയം തന്നെ വരച്ച് അതിൻ്റെ വിജയം ഉറപ്പിക്കുന്നതും അതിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതും എന്നുമൊരു വേറിട്ട അനുഭവം തന്നെയാണ് ഓർമ്മകളുടെ ആ ദിനങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഉയർത്തിയൊരു പടംവര മത്സരമായിരുന്നു എൻ്റെ സ്കൂൾ ജീവിതത്തിലുണ്ടായിരുന്നത് അന്നേ ദിവസം ഞാൻ കൂടാതെ ഇരുപത് പേരോളം മത്സരത്തിൽ പങ്കെടുത്തൊരു വലിയ ഒരു മത്സര വേദി തന്നെ ആയിരുന്നു അന്ന് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് തന്നിരുന്ന ആ വസ്തു അതിൻ്റെ എല്ലാ പൂർണ്ണമായ ആ വസ്തുവിൻ്റെ മാ വസ്തു ഏതിലാണോ അത് സ്ഥാപിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ എന്തൊക്കെ കാണുന്നു എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിവരണം തന്നെ നമ്മൾ ആ പടത്തിൽ അത് കാണിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി പ്രത്യേകിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നു

മഞ്ഞയും ചുമപ്പും പച്ചയും ഇടകലർന്ന ഒരു ബോട്ടിൽ അതിൽ ഉണ്ടായിരുന്ന ഒരു ഫ്ളവർ വെയ്സ് അതിൻ്റെ മുകളിൽ ആരും സൂക്ഷ്മമായി മാത്രം നിരീക്ഷിച്ചാൽ കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു പ്രാണിയും അത് വെച്ചിരിക്കുന്നതൊരു ടേബിളിൻ്റെ പുറത്തായിരുന്നു ആ ടേബിൾ

അലങ്കരിച്ചിരുന്നത് ഒരു മഞ്ഞ തുണിയും അതെല്ലാം കണ്ട് മനസ്സിലാക്കി നമ്മൾ അന്ന് ചെയ്യുന്ന വെല്ലുവിളിച്ചെടുക്കുന്ന ആ ഒരു മത്സരം അതിന് ശേഷം അതിൻ്റെ റിസൾട്ട് അറിയുമ്പം കിട്ടുന്നൊരു സന്തോഷം നിരാശയാണെങ്കിൽ അടുത്ത മത്സരത്തിൽ എങ്ങനെ അതിലും ഭംഗിയായി അതിലും മികച്ചതായി ഈ മത്സരം ജയിക്കും എന്നുള്ള എൻറെ ഒരു ദൃഢബോധവും അന്നാ പടി നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടും ഇത്തരത്തിലുള്ള ഒരു ഡീറ്റേയ്ലിങ്ങ് ലൈവ് ആയിട്ടുള്ള മോഡലിനെ ഒക്കെ അല്ലെങ്കിൽ നിർജ്ജീവമായ വസ്തുക്കളെ ഒക്കെ വരയ്ക്കുമ്പം കിട്ടുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ കിട്ടുന്നൊരു ഗുണം നമുക്ക് ഒരു വസ്തുവിൽ നിന്നും നമുക്ക് എന്തൊക്കെ കണ്ടെത്താം എത്രത്തോളം നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആ നിരീക്ഷണം നമ്മുടെ കൈകളിലൂടെ ആ പേപ്പറിൽ പകർത്താനാകുന്നു അത് മറ്റൊരാളെ കാണിക്കുമ്പോൾ അവർ അതിലൂടെ കാണുന്നതും അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതും തമ്മിൽ സാമ്യമുണ്ടോ അതിന് എത്രത്തോളം സാമ്യത ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ആ ഒരു വികാരം ആ ഒരാവേശം അത് എപ്പോളും മറ്റുള്ള വരകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു അതിൽ നിന്നും വ്യത്യസ്തമായൊരു വരയാണ് നമുക്ക് തരുന്ന ഒരു കണ്ടൻറ് അല്ലെങ്കിൽ ഒരു ഉദാഹരണമോ അല്ലെങ്കിൽ ഒരു കഥയോ നമുക്ക് തരും അത് എന്താണെന്നുള്ളത് നമ്മൾ അത് നമ്മുടെ മനസ്സിൽ കണ്ട് അതിനെ വരച്ചെടുക്കുന്നത് അത് മറ്റൊരു രീതിയിലുള്ളൊരു പടം വരയുടെ ഭാഗമാണ് അതിൽ നമുക്ക് നമ്മുടെ മാത്രം കാഴ്ച്ച മാത്രം നമുക്കത് ഉൾകാഴ്ച്ചയിൽ കാണുന്നത് നമ്മുടെ വിരൽ തുമ്പിൽ മതി എങ്കിൽ ഇത്തരത്തിലുള്ള ലൈവ് മോഡലിനെയോ അല്ലെങ്കിൽ നിർജ്ജീവമായ വസ്തുക്കളയോ വരയ്ക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇത് നാം മാത്രമല്ല നമുക്ക് ചുറ്റും ഉള്ളവരും കാണുന്നു അതിലെ വിധികർത്താവ് കാണുന്നത് എന്താണോ അതും നമ്മളത് കണ്ട് മനസ്സിൽ ഉൾകൊണ്ടുവേണം ഈ ഒരു വലിയ വെല്ലുവിളി അത് പൂർത്തീകരിച്ച് അതിൻ്റെ വിജയം അല്ലെങ്കിൽ വിജയത്തിൻ്റെ വെള്ളിക്കൊടി പാറിക്കാൻ ഇത്തരത്തിലെ വെല്ലുവിളിയേറ്റിയ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് ഒരുപാട് ആ ആസ്വാദനം മുമ്പോട്ടുള്ള ഭാവിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് നമുക്കതിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമെന്ന് പറയുന്നത് ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനെ നമ്മൾ കണ്ടിട്ട് അത് നമ്മുടെ മനസ്സിൽ പകർത്തി ആ പകർത്തിയ ചിത്രം അത് എങ്ങനെ വേറെ ഒരാളുടെ മുമ്പിലേക്ക് അതിനെ പ്രകടമായി കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആ നിഷ് നിമിഷങ്ങൾ അല്ലെങ്കിൽ ആ അത്രയും സമയത്ത് നെഞ്ചിടിപ്പിൻ്റെ ഒരു താളമുണ്ട് ആ താളം തന്നെയാണ് ഇപ്പോളും ആ ഓർമ്മകൾ നമ്മെ സന്തോഷിപ്പിക്കുന്നതും നമ്മെ ആവേശത്തിലാക്കുന്നതും അതിനാൽ ഇത്തരത്തിലുള്ള എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാൻ എന്നും കൊതിച്ചിട്ടേ ഉള്ളൂ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ ഇനിയും അത്തരത്തിലുള്ള ലൈവ് മോഡലിനെ അല്ലെങ്കിൽ നിർജീവ വസ്തുക്കളെ വരയ്ക്കുവാൻ ഒരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായും ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് അവസാനമായി എനിക്ക് ഓർമ ഉണ്ടാവുന്നത് എൻ്റെ അമ്മയുടെ ചിത്രം ഞാൻ അമ്മയെ നിർത്തി അമ്മയ്ക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം അത് പകർത്തി കൊടുത്തപ്പോൾ ഉണ്ടാവുന്ന ഒരു അവരുടെ കണ്ണിലുള്ള തിളക്കം ആ ഒരു ഭംഗി ആ സന്തോഷം അതാണ് നമുക്ക് കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പാരിതോഷികം എന്ന് പറയുന്നത് അങ്ങനെ പല സന്ദർഭങ്ങളിൽ ഒന്നാമത് പല ക്ലാസ്റൂമുകളിൽ പലരും ഈ ബയോളജി ക്ലാസ്സുകളിലൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ലൈവ് മോഡലിനെ വച്ച് വരയ്ക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ എന്നും കൗതുകകരമായിട്ടും അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ആവേശവും അല്ലെങ്കിലത് ചെയ്യാനുള്ള ഒരു പ്രേരണ മനസ്സിൽ എപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽക്കൂടെ പോകുന്ന ഒരു ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ള വസ്തുക്കൾ അതിനെ പൂർത്തീകരിക്കാൻ നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ കൈകൾക്കും വരയോടെ പറ്റുന്നത് എന്നും അനുഗ്രഹമാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് എന്നും വരയിൽ ഒരു വ്യത്യസ്തത ഉണ്ടായിട്ടുള്ളത് ഇത്തരം ലൈവ് മോഡലിനെയോ അല്ലെങ്കിൽ നിർജ്ജീവ വസ്തുക്കളെ ഒക്കെ വരയ്കുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം തന്നെയാണ്